എനിക്ക് കിസാൻ പ്രധാന മന്ത്രിയുടെ കിസാൻ പദ്ധതിയിൽ പിന്നെ എനിക്ക് പൈസ കിട്ടുന്നുണ്ട് അതുകൊണ്ട് വളരെയേറെ ഉപകാരപ്പെടുന്നുണ്ട് ഒരു വർഷത്തിൽ ആറായിരം രൂപ കിട്ടും ക്രിസ്തുമസിനും ഓണത്തിനും അതുപോലെ ഈസ്റ്ററിൻ്റെ സമയത്ത് ഈ ഈ രണ്ടായിരം രൂപ വെച്ചാണ് ഞങ്ങൾക്ക് കിട്ടാറുള്ളത് അത് കിട്ടുന്നതുകൊണ്ട് വളരെയേറെ നമ്മുടെ കുടുംബത്തെ ആവശ്യത്തിന് അല്ലെങ്കിൽ കൃഷിക്കുള്ള ആവശ്യത്തിനൊക്കെ നമുക്ക് ഉപകരിക്കാൻ പറ്റുന്നതും നമുക്ക് ഒരു നമുക്ക് പൈസ ഇല്ലാത്ത അവസ്ഥയിൽ ഒരു ആശ്വാസമായിട്ടാണ് ആ പൈസ കിട്ടുന്നത് നമ്മൾ കരുതുന്നത് അതുപോലെ ഒരു മരുന്ന് മേടിക്കാനുമൊക്കെ ഇതുകൊണ്ട് ഉപകരിക്കുന്നുണ്ട് പിന്നെ അത് അത് ഒത്തിരിയേറെ ആൾക്കാർക്ക് അതൊരു ഉപകാരപ്പെടുവാണ് ഉപകാരപ്രദമാണ് ഈ ഒരു പദ്ധതി ഇങ്ങനെ പാവപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ച് അത് ഒരു വളരെയേറെ സഹായമാണ് അവർക്കത് അവരത് അതിൻ്റെ വരവും നോക്കിയാണ് ഓരോ മനുഷ്യരും ഇരിക്കുന്നത് എത്രയും പെട്ടന്ന് ആ പൈസ കയ്യിൽ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഡേറ്റ് എണ്ണി എണ്ണി ഇരിക്കുകയാണ്